ആ ഞാൻ ആ ദേവാനന്ദല്ലേ ഞാൻ കോളേജീന്ന് പ്രിൻസിപ്പിളാണ് ആ ആ അത് എന്തേലും തിരക്കിലായതോണ്ട് ആയിരിക്കും വേറെ കോളിലാണ് എന്തേലും ആയിരിക്കും മെക്കെടുക്കണമോന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ തീരുമാനാണ് പക്ഷേ മെക്കാനിക്കൽ എടുക്കാണമെന്ന് വെച്ചാൽ പണി എടുക്കാം പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അതെടുക്കാൻ ആ ഫീൽഡെടുത്തിട്ട് കാര്യം ഉള്ളു ഏ പിന്നെ ജോലി സാധ്യത ശരിയാണ് അത് എന്ന് വെച്ചാൽ നമ്മുടെ സ്കില്ല് പോലെ ഇരിക്കും എന്ന് വെച്ചാൽ പഠിച്ചാൽ ഇഷ്ടം പോലെ പഠിക്കുന്നവർ കയറി പോവാം പഠിക്കാത്തവർ കയറി പോവാം സെമ്മ് ഒരു എട്ട് സെമ്മ്ണ്ട് ആ നാല് വർഷം ഡൊണേഷൻ ഇപ്പോൾ നമുക്ക് ഒരു ഡോണേഷനും ഫീസും എല്ലാം കൂടി അത്യാവശ്യം ഒരു നാല് നാല് സംതിങ്ങ് വരും കോളേജിലോട്ട് അഡ്മിഷന് ഒരു അടുത്ത അടുത്ത മന്ത് ഒരു സെക്കൻറ്റ് വീക്കൊക്കെ ആയിട്ട് പോരെ ആ അപ്പോഴെക്കും എല്ലാം ഒന്ന് ശരിയാവുള്ളു

ഓട്ടോ ഷോ ഓട്ടോ ഷോ നമ്മൾ നടത്താറുണ്ട് നമ്മൾ എൻജിനീയറിങ് എൻജിനീയറിങ്കാർ എല്ലാവരും കൂടിയിട്ട് ഓട്ടോ ഷോ നടത്താറുണ്ട് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റൊക്കെ തന്നെയാണ് ഇപ്പം എല്ലാ കോളേജും പോലെ തന്നെ നമ്മൾ അത്യാവശ്യം സ്ട്രിക്റ്റാവണ്ടേ സ്ട്രിക്റ്റായിട്ട് തന്നെ ഇവിടെ പിള്ളേരൊന്നും മര്യാദയ്ക്ക് നടക്കുന്നില്ല അങ്ങനെ എങ്കിൽ ആ പാരെൻറ്റിനേം കൊണ്ട് വരണം ഇല്ല അത് അങ്ങനത്തെ നിർബന്ധമൊന്നും ഇല്ല ഇപ്പം നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ ക്ലാസിൽ മര്യാദയ്ക്ക് വരണം കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കണം

പ്ലേസ്മെൻറ്റ് ഒരു ഫോർത്ത് സെമ്മ് കഴിയുമ്പം തൊട്ട് അവർ വന്ന് തുടങ്ങും പിന്നെ നിങ്ങളുടെ കയ്യിലിരിപ്പൊക്കെ വെച്ച് സപ്ലീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ എടുക്കുന്നത് ലാബ് ലാബ് അല്ല നമ്മുടെ ഇൻഡസ്ട്രി ടൈപ്പല്ലേ അപ്പോൾ വർക്കിങ്ങൊക്കെ മെക്കാനിക്കലായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യും പക്ഷേ നിങ്ങളാണ് അതിൻ്റെ റെക്കോർഡ്സും ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പറയുമ്പോഴും വെയ്ക്കെണ്ടതൊക്കെ നിങ്ങളാണ് പഠിപ്പിക്കേണ്ടത് കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം പഠിപ്പിച്ച് കറക്റ്റാക്കി ക്ലിയറാക്കി തരും ആ ആ ആ ഓക്കെ ഓക്കെ